ഞാൻ അതു പോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന അങ്ങനെ കൂട്ടത്തിലല്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലോ അല്ലേ ഫേസ്ബുക്കിലാണെങ്കിലോ ഞാൻ അങ്ങനെ അങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ വല്ലപ്പോഴും മാത്രം ഫോട്ടോസ് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ളു പ്ലാറ്റ്ഫോംസൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് ഫേസ്ബുക്ക് കുറവാണ് ബട്ട് എന്നാൽ പോലും ഫോട്ടോസ് ഇടുമ്പോൾ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ഇടാറുള്ളത് ഇടുകയാണെങ്കിൽ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ അപ്പം അതങ്ങ് അതിലൂടെ നമുക്ക് മനസ്സിലാകില്ല ഇൻസ്റ്റാഗ്രാം ഞാനങ്ങനെ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വേറെ ഇപ്പോൾ റീൽസ് വല്ലതുമാണേ ഇടക്ക് എടുക്കാൻ നോക്കും ബട്ട് അല്ലാണ്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറില്ല എന്തു കൊണ്ട് ചോദിച്ചാൽ ഇപ്പോൾ ഫോട്ടോസ് എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ആൾക്കാർക്ക് കാണാനായിട്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ അവസ്ഥ അവസ്ഥ അവസ്ഥയെന്നല്ല നമ്മൾ ഓരോന്നായ ലൈഫിലുള്ള മൊമന്സൊക്കെയാണെങ്കിൽ ആള്ക്കാർക്കൊന്ന് ജസ്റ്റൊന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ജസ്റ്റൊന്ന് ഷോർട്ടായിട്ടൊരു ഫോട്ടോയിലൂടെ അറിയിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളങ്ങനെ യൂസ് ചെയ്യാറുള്ളത് എന്തു കൊണ്ട് ഇത് യൂസ് ചെയ്യുക ഞാനിപ്പോൾ കുറച്ച് ഉപയോഗിച്ചാൽ എനിക്കത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവാകണമെന്നു താല്പര്യമില്ല ഇതൊക്കെയൊരു ചിലപ്പോൾ അഡിക്റ്റീവ് ആകാനുള്ള സാധ്യതകളുണ്ട് അതു കൊണ്ടാണ് ഞാൻ പിന്നെ അധികം ഇത് യൂസ് ചെയ്യാറില്ലാത്തത്